സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം എല്ലാവരും എല്ലാ വിദ്യാർത്ഥികളും തന്നെ ഉന്നത വിദ്യാഭ്യാസം തുടരാൻ തന്നെയാണ് സാദ്ധ്യത പണ്ടുള്ള കാലങ്ങളിലൊക്കെയാണെങ്കിൽ ശരിയാണീ പറഞ്ഞ പോലെ ജസ്റ്റൊക്കെ കുറച്ചൊക്കെ പഠിക്കുമ്പം തന്നെ അത് വലിയ കാര്യമാണെന്നുള്ള രീതിയിൽ തന്നെ അവർ പഠിത്തമൊക്കേ നിർത്തുമായിരുന്നു എന്നിട്ട് ഈ പറയും പോലെ എന്നാൽ കുടുംബം വല്ല പണിക്ക് പോ അല്ലെങ്കിൽ കുടുംബ ബിസിനസ് ആണെങ്കിൽ അതിലോട്ട് ചേരുകയോ അല്ലെങ്ങിലെന്തെങ്കിലും ജോലി തെരഞ്ഞെടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാവരും കുറച്ചും കൂടെയൊക്കെ വിദ്യാഭ്യാസം വേണമെന്ന രീതിയിൽ ഉന്നത വിദ്യാഭ്യാസം തേടി പോവുക തന്നെയാണ് ചെയ്യുന്നത് ഇപ്പം അല്ലെങ്കിൽ ഒട്ട് മിക്ക പേരും ഈ ഡിഗ്രി ലെവലെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ പറയും പോലെ ഒരു ജോലി അന്വേഷിച്ച് പോകുക ഒക്കെ ചെയ്യുക എന്നാലും ഒട്ടു മിക്ക ആൾക്കാരും മാക്സിമം പഠിക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിത്തന്നെ നല്ല രീതിയിൽ പഠിച്ച് പോകുന്നവരേയും കാണുന്നുണ്ട് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ പണ്ടത്തെ അപേക്ഷിച്ച് പണ്ടുള്ള കാലങ്ങളിൽ നമുക്ക് അതിനുള്ള ചില സാമ്പത്തിക സ്ഥിതികളുണ്ടാകില്ല അല്ലെങ്കിൽ ഒരുപാട് കുട്ടികളുള്ളിടത്ത് ഒരാൾക്ക് പഠിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ പണ്ടങ്ങനെയൊന്നും എന്താ ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ പോകുന്നവർ ചുരുക്കം ചില ആൾക്കാർ മാത്രമായിരുന്നു എന്നാൽ ഇപ്പം അതിനെ അപേക്ഷിച്ച് നല്ല വ്യ വ്യത്യാസം തന്നെ ഉണ്ട് കാരണം ഉന്നത പഠനം വേണമെന്ന ആഗ്രഹമുള്ള ഏതൊരു കുട്ടിയെയും പഠിപ്പിക്കാനിപ്പം വീട്ടുകാരും തയ്യാറാണീ വീട്ടുകാർക്കതിനുള്ള ഇതില്ലെങ്കിൽ ഇപ്പം ഒരുപാട് സ്കോളർഷിപ്പുകളും അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലുമൊക്കെ മാർഗ്ഗങ്ങളൊക്കെ ഇഷ്ടം പോലെ നമുക്കുണ്ട് അതുകൊണ്ട് മിക്ക ആൾക്കാരും ഈ പറയുന്നതു പോലെ ഉന്നത വിദ്യാഭ്യാസം തുടരുക തന്നെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ കരുതുന്നത്